കോളേജ് ഡിഗ്രി ഉള്ളവരെ ഒരുപാട് പേരെ എനിക്ക് അറിയാം അവർ സ്വയം മുന്നേറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല അവർ ഡിഗ്രി എടുത്ത് മൂന്ന് വർഷം എന്താ പറയുക ആ ഒരു ലെവലിൽ പഠിച്ചവരാണ് ഇപ്പം സ്വയം മുന്നേറിയവർ ഒട്ടും ഇല്ലായെന്ന് ഞാൻ പറയില്ല അതിൽ ഉണ്ട് കുറേ പേർ ഉണ്ട് പക്ഷേ എങ്കിലും എന്റെ അറിവ് വച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൂന്നിലൊന്ന് ആൾക്കാർ മാത്രമേ എന്തായിട്ടുള്ളൂ ആ ഒരു ഡിഗ്രി ലെവലിൽ പഠിച്ചു ജോലി നേടി ഇപ്പോഴും വർക്ക് ചെയ്യുന്നവർ ബാക്കി എല്ലാവരും തന്നെ ഡിഗ്രി എടുത്ത് സെമ്മ് കിട്ടാത്തതും ഇയർ കിട്ടാത്തതും അറ്റെൻഡൻസ് ഇഷ്യൂസും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ആയിട്ട് പാതിവഴിയിൽ ഉപേക്ഷിച്ചവരാണ് ഏറ്റവും കൂടുതൽ പിന്നെ പഠിച്ചതിനനുസരിച്ചുള്ളൊരു തൊഴിൽ കേരളത്തിൽ ചെയ്യുന്നവർ കുറവാണ് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടു കാര്യമില്ല ആരും തന്നെ ആ ഒരു ഫീൽഡിനെ കവർ ചെയ്യുന്നവർ എത്രയോ കുറവാണ് എങ്കിലും കുറേ പേര് ചെയ്യുന്നവരുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട് പക്ഷെ എങ്കിലും ഡിഗ്രി ലെവൽ അനുസരിച്ചു ചെയ്യുന്നവർ ചുരുക്കമാണ്